ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ടി വി ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കാരണം എന്തെന്ന് വെച്ചാല് ബിഗ് ബോസില് എനിക്ക് പലരീതിയിലുള്ള അതായത് ആൾക്കാരായിരിക്കും അതിനകത്ത് വരിക അപ്പോൾ ആ ഷോയിൽ വന്നു കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് സീസൺ ത്രീ എങ്ങാണ്ട് ആയിരുന്നു ഞാൻ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ സീസൺ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വൈഫും കാര്യങ്ങളും വൈഫൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാ കാണുന്നത് എന്നൊക്കെ ചോദിക്കും കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ ഇവര് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടിരുന്നു പോയിക്കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് നമ്മള് അടിക്ടായിപ്പോകും അങ്ങനത്തെയൊരു ടി വി ഷോയാണ് ഈ ബിഗ് ബോസ് എന്നു പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ വൺ റേറ്റിംഗ് ഉള്ള ഷോയാണ് ബിഗ് ബോസ് അതിനകത്ത് അവതാര അവതാരകനായിട്ട് വന്നത് നമ്മുടെ മോഹൻലാൽ ആണ് അപ്പോൾ ആ ഷോയാണ് കുറച്ചും കൂടി മുന്നിട്ടു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പറ്റും ആ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിരുത്തി ഇരിക്കും അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ അതൊന്ന് ഒരൊറ്റവട്ടം കണ്ട് കഴിഞ്ഞാല് മതി പിന്നെ നമ്മൾക്ക് അതിങ്ങനെ കാണാണ്ടിരിക്കാനുള്ള ഒരു വീർപ്പുമുട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കറക്ട് എട്ടരയ്ക്ക് ഒൻപത് ഒൻപത് മണിക്കാണ് ആ ഷോ തുടങ്ങുന്നതെങ്കിൽ കറക്ട് ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മള് ടൈം സ്പെന്റ് ചെയ്യും അതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ